കാരണം കൂടുതല് ആള്ക്കാരും കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറയും അത്രയേയുള്ളൂ ഇപ്പം എന്താ പറയുക ഇപ്പം അങ്ങനെ ഒരു ആളുതന്നെ എന്നോട് ചോദിക്കുകയാണെങ്കില് തന്നെ ഞാന് അയാളോട്

കാരണം എന്തൊക്കെ സാധനങ്ങൾ എന്തൊക്കെ ഇന്ഗ്രീഡിയന്സ് ആണ് വേണ്ടത് അത് എന്തു എന്തളവിലാണ് നമ്മൾ അത് എടുക്കേണ്ടതെന്നൊക്കെയാണ് കുടുതലായിട്ട് അയാളോട് പറഞ്ഞു കൊടുക്കുക

പിന്നെ ഉണ്ടാക്കിയ കാരണം അത് കഴിഞ്ഞ ശേഷം വേണമെങ്കിൽ അയാളെക്കൊണ്ട് അവിടെനിന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്യുകയും അതിനു ശേഷം അത് എങ്ങനെ ഉണ്ടെന്നു അഭിപ്രായം അയാളോട് തന്നെ പറയുകയും ചെയ്യാവുന്നതാണ് ഞാന് ഇങ്ങ് ഇത്തരത്തിലൊക്കെയാണ് എന്താ പറയുക പാചകവിഥി പഠിപ്പിക്കുകയും അല്ലെങ്കിൽ അത് മറ്റൊരാളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത്